ചെറുകിട വ്യവസായങ്ങൾ ചെറുകിട കർഷകർ സ്ത്രീ സംരംഭകർ എന്നിവർക്കായിട്ട് പ്രത്യേക നയങ്ങൾ ഉണ്ടെന്നാണ് പറയാനുള്ളത് വ്യവസായികൾക്ക് അവരവരുടെ ഇഷ്ടത്തിന് അതായത് കർഷകർ അവര് കൃഷി ചെയ്യുന്നതിൻ്റെ ശരിയായിട്ടുള്ളൊരു ഫലം അവർക്ക് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ അതിനൊരു ലാഭവും അവർക്ക് കിട്ടുന്നില്ല നമ്മളെ ശരിക്കും അവർ അവരാണ് നമ്മുടെ അടുത്ത് നമുക്ക് വേണ്ടി ശരിക്കും ഫുഡ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ അതിനുള്ള ഒരു പ്രതിഫലം അവർക്ക് കിട്ടുന്നില്ല പിന്നെ സ്ത്രീ സംരംഭകർ ആയതു സ്ത്രീ സംരംഭകരാണല്ലോയെന്നു വച്ചാൽ അവർക്ക് സ്ത്രീ എന്ന ഒരുതിൽ അവർക്ക് അതിന്റേതായ ഒരു പ്രാധാന്യം കിട്ടുന്നില്ല